ഇപ്പം ചിത്രരചന പോലുള്ള കലകളൊക്കെ കുട്ടികളിപ്പോൾ എന്താ പറയുക അത്യാവശ്യം ഒരു രണ്ട് വയസ്സ് മുതലൊക്കെ തന്നെ ഇപ്പോൾ കുട്ടികള് ചിത്രം വരച്ച് തുടങ്ങുന്നുണ്ട് കാരണം ചെറിയ കുട്ടികളിലെ എന്താ പറയുക ഇത്തരത്തിലുള്ള സ്കില്ലുകളൊക്കെ മുന്നോട്ട് കൊണ്ട് വരാൻ വേണ്ടിയിട്ട് പാരൻസ് അതായത് മാതാപിതാക്കള് നല്ല രീതിക്ക് തന്നെ ഇപ്പോൾ ഉള്ള മാതാപിതാക്കള് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ചെറുപ്പം ഈ തൊട്ടേ ഈ വരയോടൊക്കെ ഉള്ള ആസക്തി മനസ്സിലാക്കി അതിനോടുള്ള ഒരു താൽപ്പര്യം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ കുട്ടികളിലൊക്ക വരും ഭാവിലേക്ക് നല്ല രീതിയില് തന്നെ ചിത്രകല പോലുള്ള കലാരൂപങ്ങളൊക്കെ എത്തിക്കാൻ എന്ത് കൊണ്ടും മാതാപിതാക്കൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഓൾമോസ്റ്റ് എന്താ പറയുക ചിത്രം വരയൊക്കെ നല്ലൊരു കഴിവ് തന്നെയാണ് കാരണം വരച്ചെടുക്കണമെങ്കിൽ നല്ല അത്യാവശ്യം നല്ല കഴിവ് തന്നെ വേണം അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു അഭിപ്രായത്തില് പറയുവാണെങ്കിൽ എന്തും കൊണ്ടും അതൊര് നല്ല കലാരൂപം തന്നെയാണ് ചിത്രം വരയ്ക്കാനൊക്കെ ഉള്ള കഴിവെന്ന് പറഞ്ഞാൽ നല്ലൊരു ഇത് തന്നെയാണ് ഇപ്പം ചിത്രകലയൊക്കെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇൻസ്റ്റിട്യൂട്ടുകളും അതായത് സംരംഭങ്ങളൊക്കെ ഇപ്പൊഴും നമ്മുടെ എന്താ പറയുക സംസ്ഥാനത്ത് തന്നെ ഒരുപാടൊക്കെയുണ്ട് അപ്പം അത് വരുന്നത് കുട്ടികള് മുതലേ നല്ല പ്രയായവര് വരെ നല്ല രീതിക്ക് തന്നെ ഇത് പഠിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോഴും അപ്പോൾ നല്ല രീതിക്ക് തന്നെ പഠിക്കാൻ ഇപ്പം കുട്ടികൾക്ക് ഏകദേശം വലിയ പ്രായത്തിൻ്റെ കണക്കൊന്നും നമുക്ക് നോക്കണ്ടതായിട്ടില്ല